പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ഒരു ഒരു പാചകം എന്നുപറയുന്നത് കേക്ക് ഉണ്ടാക്കുന്നത് ആണ് അത് ഇണ്ടാക്കാനുള്ള മൈക്രോ ഓവൻ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ആ പാചക വിദ്യയെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഞാൻ ഇതുവരെ ശ്രമിച്ചു നോക്കിട്ടില്ല ഒരു ഓവൻ ഒക്കെ വാങ്ങിയ ശേഷം അത് വീണ്ടും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം